അപ്പോൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്കീ കലനെയോക്കെ എന്താ കലാപരമായിട്ടുള്ള താല്പര്യത്തിനൊക്കെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു കാര്യം തന്നെയാണ് കാരണം കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ ഇപ്പോൾ വികസിപ്പിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് നല്ലൊരു എന്താപറയാ നല്ലൊരു സ്ഥാനം തന്നെ നമുക്ക് ലഭിക്കും കാരണം ചിത്രരചന ആയിക്കോട്ടെ ഗെയിമായിക്കോട്ടെ അങ്ങിനെയെന്ത് കാര്യങ്ങളായാലും കലാപരമായിട്ടും കായികപരമായിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളെയും നമ്മളിപ്പോൾ എന്താപറയാ വികസിപ്പിക്കുന്നതോടുകൂടി സമൂഹത്തിൽ നമുക്ക് നല്ലൊരു വിലയാണ് കിട്ടുന്നത് സമൂഹം നമ്മളെ എന്തോ എന്താപറയാ നമ്മളെ നല്ല രീതിയ്ക്ക് തന്നെ വിലവ വിലവയ്ക്കുയും അവർ നമ്മളെ എന്താപറയാ നല്ല രീതിയ്ക്ക് തന്നെ സമൂഹത്തിൽ മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കയും ചെയ്യുന്നുണ്ട് അപ്പോൾ കലാപരമായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടു സ്ഥലങ്ങളിലിപ്പോൾ എന്താപറയാ ജോലിയായാലും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടീട്ട് ദേ എന്താപറയാ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എന്താപറയാ ഇങ്ങനത്തെ ജീവിതത്തിൽ കലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട് കാരണം അങ്ങനെ കല കലാപരമായിട്ടും കായികപരമായിട്ടൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരെ മെച്ചപ്പെടുത്തി അവർ എന്താപറയാ അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം സമൂഹത്തിലുള്ളതുകൊണ്ട് അവർക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഇതൊക്കെ ഇതുപയോഗിച്ചുതന്നെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്